ഹലോ ഹലോ അതെ പറഞ്ഞോളൂ സാർ

ആ ഓക്കേ സാർ

ആ അതേ അതേ എത്രാം സ്റ്റാൻഡേർഡ് ആണ് സാർ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ സാർ നമുക്കിപ്പോൾ ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് വെച്ചാണ് ഓരോ ഇയർ ബേസിൽ വരുന്നത് ആ അതിൽ നമുക്ക് പി ടി എ ഫണ്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും പിന്നെ യൂണിഫോമ് ബുക്ക്സ് പിന്നെ സ്കൂൾ ബസ്സ് അങ്ങനെ ഉള്ള ചാർജ് ഒക്കെ നമ്മൾ അഡീഷണൽ ആണ് വാങ്ങുന്നത്

ഇല്ലില്ലാ അത് നമുക്ക് അഡീഷണൽ ആണ് നമ്മൾ ഇപ്പോൾ സ്കൂളിലെ ഫീസ് പി ടി എ ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഈ ഫിഫ്റ്റി തൗസൻഡിൽ വാങ്ങുന്നത് ടീച്ചേഴ്സിനും അതിനും ഇതിനുമായിട്ടുള്ള ഫണ്ടുകൾ ആ അത് ഇയർ വൈസിൽ ആണ് ഒരു വർഷം കുട്ടീൻറ്റെ ഫീ ആണ് സ്കൂൾ ഫീ ആണ് അത് ഇല്ലാ മന്ത്ലി ആയാലും മതി അഡ്മിഷന് കുട്ടീടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മാത്രം മതി ഫീസും കാര്യങ്ങളും ആ ഓക്കേ പിന്നെ കുട്ടീടേ കുറച്ച് ഫോട്ടോസ് അതായത് മൂന്ന് ഫോട്ടോ വേണ്ടി വരും പിന്നെ സാറ് ഡയറക്റ്റ് വരുവായിരിക്കോല്ലോ അല്ലേ ചേർക്കാൻ ഓക്കേ സാറിൻ്റെ ഫോം ഫില്ല് ചെയ്യുമ്പം സാറ് സൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് അതിന് ആരേലും ഒരു ഗാഡിയൻ ആയിട്ട് കൂടെ വരേണ്ടി വരും ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ്സിൽ ഇരിത്തുന്നുണ്ടോ അതോ നെക്സ്റ്റ് ഡേ ആയിരിക്കുമോ ഇവിടെ ക്ലാസ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു

ആ ശനിയാഴ്ച നമ്മൾ ഓഫീസിൽ സ്റ്റാഫുകൾ കുറച്ച് പേർ ഉണ്ടാവും ആ ഓക്കേ സാർ ആ ശനിയാഴ്ച ആയിരിക്കും ബെറ്റർ ആ ആ ആ ഓക്കേ സാർ അപ്പോൾ സാർ വരുമ്പോൾ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെയെങ്കിലും അത് ഏൽപ്പിക്കാൻ ആ ആ ഓക്കേ സാറ് എന്തായാലും എത്തുന്നതിന് ഒരു ഹാഫ് ആൻ ഹവർ മുൻപെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കേ ഞാൻ അവിടെ ചെയ്തോളാം ഓക്കേ താങ്ക് യൂ